നമസ്കാരം എച്ച് പി സെൻ്ററിലേക്ക് സ്വാഗതം ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് ഹലോ എച്ച് പി സെൻ്ററിലേക്ക് സ്വാഗതം ഞാൻ എങ്ങനെയാണ് ഇന്ന് താങ്കളെ സഹായിക്കേണ്ടത് ഓക്കെ താങ്കൾ ഏത് ഡേറ്റിലാണ് എടുത്തത് അറിയാമോ ഓക്കേ എവിടന്നാ എടുത്തത് എന്താണ് താങ്കളുടെ പ്രശ്നം എന്താണ് പീ സീടെ ബ്ലാക്ക് സ്ക്രീൻ ആണല്ലേ ബ്ലാക്ക് സ്ക്രീൻ ഓക്കെ ഇത് നുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ പ്രശ്നം ആ ആ ആ ആ ആ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ആ ഞങ്ങൾക്ക് ഇപ്പോൾ ഹോം സർവീസ് ഇല്ല പിന്നെ നിങ്ങൾ അടുത്തുള്ള ഒരു സെൻ്ററിൽ ആയി ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ താങ്കളുടെ സ്ഥലം എവിടെയാണ് മടത്തറയാണ് നമ്മുടെ ചടയമംഗലത്തൊരു സ്റ്റോറുണ്ട് ആ പിന്നെ കൊട്ടിയത്തുണ്ട് ഒന്ന് ഓക്കെ എനിക്കും അവിടെ വലിയ ടച്ചില്ല

ആ അല്ല പിന്നെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ആണ് റാമിൻ്റെ വല്ല ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈപ്പണിക്ക് തന്നെ ഒതുങ്ങുന്നതാണ് ഓക്കെ ആ ഞാൻ പറഞ്ഞ് തരാം കുറച്ച് ഐഡിയാസ് പറഞ്ഞ് തരാം അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സാറിന് ഫസ്റ്റ് ആ കമ്പ്യൂട്ടറിൻ്റെ സി പി യു ഒന്ന് ഊരണം ആയിരുന്നു അതെ ആണ് അതെ ആണ് സി പി യുടെ പുറകിലൊരു സിൽവർ കളർ സ്ഥലം ഇല്ലേ സിൽവർ കോട്ടിംഗ് ആ അവിടെ അവിടെ കുറച്ച് സ്ക്രൂസ് കാണാം ആ സ്ക്രൂസ് ഒന്ന് ഊരുമോ ഊരി ആക്കിയോ ഓക്കെ ശേഷം അതില് റാം എന്ന് പറയുന്ന ഒരു സംഭവം അത് നിങ്ങൾ ഗൂഗിള് ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം റാം അറിയാമോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ അതിൻ്റെ ഫോട്ടോ കാണാം ഓക്കെ ആ സാധനം ഒന്ന് ഊരിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുക ഫസ്റ്റ് അതൊന്ന് ക്ലീൻ ഊരൂ ഫസ്റ്റ് ഒന്ന് അത് ഊരി എടുക്കൂ ഓക്കെ ഓ അതെ ചെറിയൊരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ച് ഹാർഡ് ആയിട്ടുള്ള സാധനം വെച്ച് പിടിക്കല്ലേ എങ്കിൽ അത് ഡാമേജ് ആവും പിന്നെ ഇരട്ടി പണിയാവുന്നതാണ് തുടച്ചെടുത്തു ഓക്കെ അതിൽ വേറെ പ്രശ്നങ്ങളായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ കരിഞ്ഞതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ പിന്നെ തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക ആ ഓക്കെ തിരിച്ചൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്ക് ഓ അതെ ഇൻസ്റ്റാള് ചെയ്ത് നോക്ക്

അല്ല ഇരുന്ന പോലെയാ വെച്ചു ആ തിരിച്ച് പിന്നെ സിൽവർ കോട്ടിംഗ് ഒന്ന് പുള്ള് ചെയ്തേ ഒന്ന് തിരിച്ച് അസ്സെംബ്ള് ചെയ്ത് വെച്ചേ അതെ അതെ ഓക്കെ ഇനി ഒന്ന് ഓണ് ആക്കി നോക്കിയേ സ്ക്രീൻ ഒന്ന് ഓണ് ആക്കി നോക്കിയേ ഫസ്റ്റ് നിങ്ങൾ ആ മോണിറ്ററ് മാത്രം ഓ ആ ആ ആണല്ലേ ആണല്ലേ

ആ അങ്ങനെ ആണെങ്കിൽ അല്ല ഒരു സർവീസ് സെൻ്ററുവായി ബന്ധപ്പെടുന്നതാണ് മുഖ്യം എന്ന് തോന്നുന്നു അനുയോജ്യം ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി പത്ത് മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെയാണ് സമയം ഓക്കെ ഓക്കെ എച്ച് പി കെയറിലേക്ക് വിളിച്ചതിന് നന്ദി ശുഭദിനം നേരുന്നു